നമ്മൾ ഇപ്പോൾ കൃഷി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കാലാവസ്ഥ അടിസ്ഥാനത്തിലൊക്കെ ആണല്ലോ കൃഷിയൊക്കെ ചെയ്യുന്നത് വാഴയാണെങ്കിലും നെല്ല് കൃഷി ആണെങ്കിലും അങ്ങനെയുള്ള കൃഷിയൊക്കെ ചെയ്യുകയാണേൽ അതിൻ്റെ കാലാവസ്ഥയ്ക്ക് നോക്കിയിട്ട് ആണല്ലോ കൃഷി ചെയ്യുന്നത് അപ്പോഴേക്കും ഇപ്പം നെല്ല് ആണെങ്കിൽ മഴക്കാലത്തൊന്നും കൃഷി ചെയ്യാൻ പറ്റത്തില്ല കാരണം കർഷകർക്ക് അത് ഭയങ്കര നഷ്ടമായിരിക്കും മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ നെല്ലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്കും കൃഷിയില്ലാതെ വരും പിന്നെ കിട്ടുന്ന പ്രതിഫലവും തീരെ കുറവായിരിക്കും അതുപോലെ തന്നെ ഇപ്പം വാഴയാണെങ്കിലും വാഴയൊക്കെ ആണെങ്കിലും ആ മഴ മഴ സമയത്തൊന്നും അങ്ങനെയൊന്നും നടാൻ പറ്റത്തില്ല കാരണം ഇപ്പം അതിൻ്റെ ക്ലൈമറ്റ് അനുസരിച്ചാണല്ലോ നമ്മൾ ഇതെല്ലാം ചെയ്യേണ്ടത് അതുപോലെതന്നെ പ്രളയം വന്നപ്പോഴാണെങ്കിലും ഒരുപാട് നഷ്ടങ്ങൾ കൃഷിക്കാർക്കാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ട് പ്രളയ സമയത്ത് പ്രളയ സമയത്തൊക്കെ കർഷകർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം കർഷകരുടെയൊക്കെ പാടമൊക്കെ ഒരുപാട് പോയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മണ്ണ് ഓ ഓരോ സ്ഥലത്തെ മണ്ണിനു ഭയങ്കര വ്യത്യാസമുണ്ട് മണ്ണ് എക്കൽ മണ്ണ് അങ്ങനെയൊക്കെ ഓരോ മണ്ണ് കറുത്ത മണ്ണ് അങ്ങനെയൊക്കെ ഓരോ മണ്ണൊക്കെ ഉണ്ടല്ലോ അപ്പം അതിൻ്റെതായ രീതിയിലാണ് കൃഷിയൊക്കെ ചെയ്യേണ്ടത് വളക്കൂറുള്ള മണ്ണ് ഇപ്പം കൃഷിയിലൊക്കെയാണെങ്കിലും കീടനാശിനിയൊക്കെ തളിക്കുമ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാകും കാരണം വിഷമാണല്ലോ കിട്ടണെ അപ്പം കൂടുതലും വീടുകളിൽ ഒക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെതായ ഒരു രീതിയുണ്ട് ഇപ്പം അതിലൊന്ന് നമ്മൾ വിഷം ഒന്നും അടിക്കുകയില്ലല്ലോ പക്ഷേ അതേസമയം കർഷകരാണെങ്കിലും ഒരുപാട് പ്രതിഫലം കിട്ടാൻ വേണ്ടി അവര് ഓരോ കീടനാശിനികളൊക്കെ തളിക്കും അതിങ്ങനെ ഈ വണ്ടും പുഴുവൊക്കെ വിത്ത് ഒക്കെ ഇങ്ങനെ കായ്കൾ ഒക്കെ തിന്നാതിരിക്കാൻ വേണ്ടിയാണ് അവര് അതെല്ലാം ചെയ്യുന്നത് അപ്പോഴേക്കും വിളകളൊക്കെ നശിക്കുമല്ലോ വിളകൾ നശിച്ചാൽ പിന്നെ കർഷകർക്ക് അത് തീരാനഷ്ടമാ അപ്പോൾ അതിൻ്റെതായ രീതിയിൽ അവർ കീടനാശിനിയൊക്കെ തളിക്കുന്നു പിന്നെ പയറൊക്കെ നടുകയാണെങ്കിൽ തന്നെ അതിങ്ങനെ തടയൊക്കെയെടുത്ത് ഒരു ദിവസം കൊണ്ട് തന്നെ വിത്തിട്ടാൽ പയറിൻ്റെ വിത്തിട്ടാൽ അത് ഒരു ദിവസം കൊണ്ട് തന്നെ അത് പൊട്ടിമുളക്കും പിന്നെ അത് ഓരോ ദിവസവും തന്നെ ഇങ്ങനെ വലുതായി വലുതായി വലുതായി പെട്ടെന്ന് തന്നെ അതിന് ഫലം കിട്ടുന്നതാണ് പയർ പയർ വിത്ത് അപ്പോൾ അതിൻ്റെതായ മണ്ണൊക്കെ അതിനും നല്ല നല്ല ശുശ്രൂഷ ഇപ്പോൾ മക്കൾ വളർന്നുവരുന്നത് എങ്ങനെയാണോ അതുപോലെയൊക്കെ തന്നെ വേണം ഈ നമ്മൾ ഈ പച്ചക്കറികളെയൊക്കെ കൃഷികളെയൊക്കെ നോക്കാൻ വേണ്ടി അപ്പോൾ അതിൻ്റെതായ സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇപ്പം ചെറിയ ചെറിയ പുല്ല് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ചു കൊടുക്കണം അങ്ങനെയുള്ള രീതിയിലൊക്കെ വേണം നമ്മൾ കൃഷിയെ നോക്കാൻ പിള്ളേരെ നോക്കുന്നതുപോലെ വേണം നമ്മൾ എപ്പോഴും കൃഷിയെ നോക്കാൻ വേണ്ടി